ചിത്രം വരച്ചു തുടങ്ങുന്നവർക്ക് അതായത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതായത് ചെറുപ്പത്തിലേ ഇങ്ങനെ അതായത് വരയ്ക്കാനൊക്കെ ഉള്ളൊരു ടെൻ്റൻസി കാണിക്കും ചി ല അത് ചില കുട്ടികൾ രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് ആകുമ്പോഴേക്കും അവർ പ്രകൃതിയെക്കുറിച്ച് ഒരു മരം ആണെങ്കിലും ഒരു വീട് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം മനോഹരമായിട്ട് വരയ്ക്കാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ അവരുടെ കഴിവിനെ അടിച്ചമർത്താതെ അത് അവർ അത് എൽ കെ ജി യു കെ ജി പോകുന്നതിൻ്റെ കൂടെത്തന്നെ നമ്മൾ ചിത്രം വരയ്ക്കാനും അങ്ങനെ ഉള്ളതിനൊക്കെ അതായത് അവരെ വിടുക അവരെ വിടുമ്പോൾ അതായത് അവർക്ക് ഒന്നുകൂടി അത് ഇമ്പ്രൂവ്മെൻ്റ് ആവാനും സാധിക്കും പിന്നെ അവർക്ക് അതായത് ചില ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ആരും പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അതായത് അത് അവർ മറന്നു പോകും ഇപ്പം നമ്മൾ അതിന് നമ്മളെ കുട്ടികൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു മാഷിൻ്റെ അടുത്തോ ഡ്രോയിങ്ങ് ക്ലാസ്സിൽ കൊണ്ടുവിടുക അപ്പോൾ അവിടെനിന്ന് പഠിക്കുമ്പോൾ അവർക്കത് ഒന്നുകൂടി ഒരു ഇൻട്രെസ്റ്റ് ആയിട്ട് തോന്നും പിന്നെ അവർ അത് വിടില്ല പിന്നെ വലുതാവുമ്പോൾ അവരൊരു ചിത്രക്കാരനോ ചിത്രക്കാരിയോ ആയേക്കാം അപ്പോൾ നമ്മൾ നല്ലതൊക്കെ അതായത് നല്ല ക്ലാസുകൾ കൊടുക്കുക